ആണല്ലോ ആരാണ് ആരാണ് ആ മാഡം പറഞ്ഞോളൂ മാഡം

ആ ആ അതെ ആ ആ അതെ ആ ആ ആ ഇപ്പോൾ അതെ ഇപ്പോൾ ആണെങ്കിൽ ഇല്ലേ അവർ കളിരംഗത്ത് വൈകുന്നേരം ആയെങ്കിൽ ക്രിക്കറ്റ് കളി ആണ് വന്നിട്ട് ബാഗ് ഒരു മൂലക്ക് വയ്ക്കും ക്രിക്കറ്റ് കളി ക്കാൻ ഓടും പിന്നെ വരുന്നത് രാത്രി ഏഴ് മണി എട്ട് മണി ആവും പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാണ് ബുക്ക് എടുക്കുന്ന പരിപാടി ഇല്ല ആ ആണ് അതെ അത് കൊണ്ട് നല്ല പഠിച്ചത് കൊണ്ട് ഇരുന്നതാണ് നല്ല മാർക്ക് ഉള്ള കുട്ടി ആയിരുന്നു നല്ല മാത്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ബാക്കിൽ ആ ആ ആ ആ ആ അതെയോ മാഡം ആ മാഡം ഒന്ന് അവൻ്റെ ക്ലാസ് ടീച്ചറോട് ഒന്ന് പറഞ്ഞിട്ട് ഒരു അര മണിക്കൂർ നേരം അവനെ ഒന്ന് സ്പെഷ്യല് സ്പെഷ്യല് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്ക് ആ അത് നന്നായിരുന്നു ആ ഒന്ന് അവൻ്റെ ടീച്ചറോട് ക്ലാസ് ടീച്ചറോട് ഒന്ന് ഇൻഫോമ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം വരുന്നുണ്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പറയാം അവരോട് ആ ആ ആ അതെ അപ്പോൾ ആ മാഡം ഒന്ന് ശ്രദ്ധിക്കണേ അവൻ്റെ ആ ഇപ്പോഴ് കളീരെ തന്നെ പ്രായം അല്ലേ ആ അതുകൊണ്ട് ആൺപിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല പെൺ പിള്ളേർ ആണെങ്കിൽ കുറച്ചെങ്കിലും ഇരിക്കു അല്ലേ ആ ഇവർ ആണ് പറഞ്ഞാൽ കേൾക്കില്ല

അതെ അതെ അതെ കളി എന്നെ ആണ് ഫുൾ ടൈം കളി തന്നെ ആ അതുകൊണ്ട് ആണ് അപ്പോൾ ഞാൻ ഒന്ന് ക്ലാസ് ടീച്ചറോട് സാർ മാഡം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അര മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ അവൻ ഒന്ന് എടുക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ ഒന്ന് നന്നായിരുന്നു ഒരു കോച്ചിംഗ് പോലെ ആവുമല്ലോ ട്യൂഷൻ ഒക്കെ വിടുന്നുണ്ട് പക്ഷെ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ ട്യൂഷൻ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട് ക്ലാസ് അതെ അതെ അതെ ആ ആ ആ അതെ അതെ അപ്പോൾ നന്നായിരുന്നു താങ്ക് യു ആ താങ്ക് യു മാഡം താങ്ക് യു താങ്ക് യു